ഹലോ ഓ ഇത് മഹീന്ദ്രേൻ്റെ ഷോറൂം അല്ലേ ആ എനക്ക് ഒന്ന് ബൊലേറോൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണമായിരുന്നു ആ ഇത് ഫോർ ഇൻറ്റു ഫോറിന് ആ ഓക്കേ ആ ഉണ്ട് ആ ഓക്കേ വൈറ്റ് ഉണ്ടാവുവോ ആ ഓക്കേ ആ ഓക്കേ ആ ഹ്മ് ആ അതെ ആ ഓക്കേ ഓക്കേ അല്ല അല്ല അല്ല ആ ഓക്കേ ഓക്കേ ആ ഫ്രഷ് എടുക്കാൻ

ആ ഓക്കേ ഓക്കേ കൊ കുഴപ്പമില്ല ആ അതെ അതെ ആ ആ ഓക്കേ വേറെ ഏതൊക്കെ വണ്ടിയാണ് ഇപ്പോൾ അവിടെ ഉള്ളത് ഓക്കേ താർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ ഓക്കേ

ആ ഓക്കേ ആ ഓക്കേ ആ ആ ആ അതും ആവും നിങ്ങൾ പറഞ്ഞാൽ മതി എപ്പോഴാണ് അത് വരുക ടു ഈ വീക്ക് എന്നല്ലേ പറഞ്ഞത് ആ ഓക്കേ ഓക്കേ അപ്പോൾ വരാം ഓക്കേ ഓക്കേ